നമുക്ക് സർക്കാരിൽ നിന്ന് ഒരു വൈദ്യുതി കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കില് അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാല് നമ്മള് കെ എസ് ഇ ബിയില് പോയിട്ട് അതിന് അപ്ലൈ ചെയ്യാം നമുക്കൊരു കറൻറ്റ് കണക്ഷൻ വേണം എന്ന മട്ടില് നമ്മള് അപ്ലൈ ചെയ്യുക അതില് അവരൊരു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് തരും അത് നമ്മള് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫില് ചെയ്തുകൊടുക്കാം നമ്മുടെ പേര് മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അതില് ചോദിക്കുന്നതെന്ന് വെച്ചാല് അതെല്ലാം വെച്ചിട്ട് നമ്മള് ആ ഫോം ഫില് ചെയ്തുകൊടുക്കുക പിന്നെ അതില് മെയിനായിട്ട് നമുക്ക് ഐഡന്റിറ്റി പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടിവരും ആധാറോ ലൈസൻസോ അല്ലെങ്കില് റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും അവര് ചോദിക്കുന്നത് നമ്മളത് ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ ഒറിജിനലോ നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും നമുക്കിത് അപ്ലൈ ചെയ്യാന് ഇപ്പോള് നമുക്ക് ഓൺലൈനായിട്ടും സാധ്യമാണ് ആദ്യമൊക്കെ നമ്മളവിടെ ചെന്നിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ എങ്കില് ഇന്നത് നമുക്ക് ഓൺലൈനായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്കൊരു ഓണർഷിപ്പിൻ്റെ പ്രൂഫ് വേണ്ടി വരും എന്ന് വെച്ചാല് നമുക്കതിൻ്റെ നമുക്ക് എവിടെയാണോ വൈദ്യുതി എടുക്കേണ്ടത് ആ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് വേണ്ടി വരും ഇത്രയും നമ്മള് കൊടുത്തിട്ട് നമ്മളത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നമുക്കതിൻ്റെ വിവരങ്ങൾ അതായത് നമുക്ക് എന്തായിയെന്നുള്ളത് നമുക്കറിയണമെന്നുണ്ടെങ്കില് നമ്മള് ഓൺലൈനായിട്ട് നമുക്കതറിയാൻ സാധിക്കും അതല്ലെങ്കില് നമുക്ക് കെ എസ് ഇ ബി ആയിട്ട് കോൺടാക്ട് ചെയ്താല് നമുക്കതിനുള്ള വിവരങ്ങളില് നമ്മുടെ അപ്ലൈ ചെയ്തതിൻ്റെ എവിടെ വരെയെത്തി അല്ലെങ്കില് നമുക്ക് കറന്റ് കണക്ഷൻ നമുക്ക് പാസായോ എന്നെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ വൈദ്യുതി വിച്ഛേദിക്കുന്നുന്നത് കൊണ്ട് കർഷകർക്ക് അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതില് മെയിനായിട്ട് ഈ കറൻറ്റ് കണക്ഷൻ നമ്മള് വിച്ഛേദിക്കുന്നത് കൊണ്ട് ജലസേചന സംവിധാനങ്ങളത് തടസ്സപ്പെടുത്തും കാരണം കൃഷിക്ക് ആവശ്യമായ ജലം വരുന്ന അത് വരുന്ന കറൻറ്റ് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പല ഉപകരണങ്ങള് കൊണ്ടുണ്ടാകാം അപ്പോള് അതുമൂലം അത് ജലസേചനത്തെ ബാധിക്കും പിന്നെയത് നമ്മള് മണ്ണിൻ്റെ ഗുണനിലവാരം പിന്നെ നമ്മുടെ വിളയുടെ വളർച്ചയൊക്കെ അറിയുന്നതിന് ഉള്ള ഉപകരണങ്ങളുണ്ടാകാം അത് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്കറിയാൻ സാധിക്കാതെ വരും അതുമൂലം നമ്മുടെ കൃഷിയുടെ കാര്യക്ഷമതയും കുറയും നമുക്ക് ഉൽപാദനം കുറയും അതായത് നമുക്ക് കിട്ടുന്ന വിളകള് നശിച്ചുപോവുകയും അപ്പോള് അതുകൊണ്ട് തന്നെയത് ഉൽപാദനക്ഷമത കുറയ്ക്കും അതുമൂലം കർഷകർക്ക് ലഭിക്കേണ്ട ലാഭം കുറയും ഇത് കർഷകരെ പലതരം ബുദ്ധിമുട്ടുകളിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും മറ്റും നയിക്കും